എനിക്ക് ബൈക്ക് യാത്ര വളരെ ഇഷ്ടമുള്ള ഒരു കാര്യമാണ് ഞാൻ സാധാരണയായി ഒരു ആക്ടിവ സ്കൂട്ടിയിലാണ് യാത്ര അധികവും ചെയ്യുന്നത് പക്ഷേ എനിക്ക് ഒരു പൾസർ ബൈക്കിനോട് വളരെ വളരെയധികം താല്പര്യമാണ് ആ ഒരു പൾസറിലുള്ള യാത്രയും വളരെയധികം ഇഷ്ടപ്പെടുന്നു കാരണം നമ്മൾക്കൊരു പൾസർ ബൈക്ക് ഇല്ല സാധാരണ ഗതിയിൽ ആൺകുട്ടികൾക്ക് ആണ് ബൾസർ ബൈക്കിനോടൊക്കെ കൂടുതലായ താല്പര്യമുള്ളത് അതിൽ എനിക്ക് കൂടുതലായിട്ട് യാത്ര ചെയ്യാൻ വേണ്ടിയുള്ള ഒരു സാഹചര്യവും ഉണ്ടായിട്ടില്ല അതുകൊണ്ടായിരിക്കാം പൾസറിനോട് ഇത്ര താല്പര്യം എന്ന് തോന്നുന്നത് ഞാൻ സാധാരണയായിട്ടൊരു ആക്റ്റീവ ആണ് നമ്മൾ ഉപയോഗിക്കുന്നത് എനിക്കൊരു പൾസർ സ്വന്തമായി വാങ്ങി അതിൽ യാത്ര ചെയ്യണമെന്നൊക്കെ ആഗ്രഹമുണ്ട് എൻ്റെ ഒരു അഭിപ്രായത്തിൽ എനിക്ക് പൾസറിനോടാണ് കൂടുതൽ താൽപര്യം അതുകൊണ്ട് തന്നെ പൾസറിലായിരിക്കാം കൂടുതലായിട്ട് നമുക്ക് യാത്ര സൗകര്യപ്രദമായ രീതിയിൽ നടത്താൻ സാധിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത് പക്ഷേ എനിക്ക് ആ പൾസർ എന്ന ബൈക്കിനോടുള്ള ഒരു താല്പര്യം കൊണ്ടായിരിക്കാം അത്തരത്തിലുള്ള ഒരു തോന്നൽ ഉണ്ടാകുന്നത് ഒരു പക്ഷേ വേറെ പല ആൾക്കാർക്കും വേറെ പല ബൈക്കുകളും താല്പര്യമുള്ളവർക്ക് അതിൻറേതായ ഇമ്പോർട്ടൻസും അതിൻറേതായ സൗകര്യങ്ങളുമൊക്കെ മനസ്സിലാക്കി അതിന് പ്രാധാന്യം കൂടുതൽ കൊടുക്കുന്നവർ ഉണ്ടാകാം പക്ഷേ എനിക്ക് എൻ്റെ ഒരു അറിവിൽ പൾസർ ആകും കുറച്ച് വ്യത്യസ്തം മാറുന്നതും അതുപോലെ തന്നെ ഈസിയായിട്ടും യാത്ര ചെയ്യാവുന്നതെന്ന് എനിക്ക് തോന്നുന്നു ഭാവിയിലൊരു പൾസറ് വാങ്ങി ഒരു യാത്ര വലിയ ഒരു യാത്രയൊക്കെ നടത്തണമെന്നതാണ് എൻ്റെ ആഗ്രഹം അതായത് നമ്മളുടെ കേരളത്തിൽ നിന്നൊക്കെ ജമ്മു പോലുള്ള ഒരു സംസ്ഥാനത്തേക്ക് യാത്ര പോകണമെന്നാണ് എൻ്റെ വലിയ ഒരു ആഗ്രഹം അപ്പോൾ നമ്മളുടെ കേരളത്തിൽ നിന്നുള്ള പല ഗ്യാങ്ങുകളും ഇങ്ങനെ സ്കൂട്ടർ സവാരി അല്ലെങ്കിൽ ബൈക്ക് സവാരിയൊക്കെ ദൂരെ സ്ഥലങ്ങളിലേക്ക് യാത്ര ചെയ്ത് ചെയ്യാറുണ്ടല്ലോ അപ്പം അതുപോലെ ഒരു ഗ്യാങ്ങിൻ്റെ ഭാഗമായിട്ട് ഒരു പൾസറിലൊക്കെ യാത്ര ചെയ്യണമെന്ന് എനിക്ക് വളരെയധികം ആഗ്രഹം ഉണ്ട് അത് എത്രത്തോളം ഫലപ്രദമാകുമെന്നും സ്വന്തമായൊരു ആ പൾസർ എങ്ങനെ വാങ്ങി എടുക്കാമെന്നും ഒന്നും അറിയില്ല പക്ഷേ നമ്മളുടെ പരമാവധി നമ്മൾ അത് ആ ഒരു ലക്ഷ്യത്തിലെത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കും അപ്പം അത്തരത്തിൽ നമുക്ക് സ്വന്തമായൊരു ബൈക്ക് എന്ന സ്വപ്നം പൂവണിയുകയാണെങ്കിൽ ഇത്തരത്തിലുള്ള യാത്രകളൊക്കെ ഈസി ആയിട്ട് നടത്താൻ വേണ്ടി കഴിയുമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം അതുകൊണ്ട് ഇന്നലത്തെ ഇന്നത്തെ ഈ സമൂഹത്തിൽ പെൺകുട്ടികളാണെങ്കിൽ കൂടി ഇത്തരത്തിലുള്ള ഓരോ യാത്രകൾക്കും പലതരത്തിലുള്ള മുൻപോട്ട് തന്നെ വരണമെന്നാണ് എൻ്റെ ഒരു എളിയ അഭിപ്രായം എന്ന് പറയുന്നത് ഇത്രയുമാണ് എനിക്ക് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്